ചാണകം മെഴികിയ പെരയും ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പെരയും പറ്റിയാണ് ചോദ്യം വന്നിരിക്കുന്നത് അതിന് എന്നാ പറയുന്നത് ഒരു കുറെ ഒരമ്പത് വർഷത്തിന് മുൻപ് ഞങ്ങളുടെ എല്ലാ കുഞ്ഞ് നാളുകളില് എല്ലാം ചാണകം മെഴുകിയതും അങ്ങനത്തെ തറയോടുകൂടിയ പെരകളൊക്കെ ആയിരുന്നു ഇന്നിപ്പം അങ്ങനത്തെതൊന്നും അല്ല അന്ന് അത് ഉപയോഗിച്ചു അതിൽ തൃപ്തരായിരുന്നു ഇന്നിപ്പം അങ്ങനെയല്ല ഇന്ന് ഒത്തിരി മാറ്റങ്ങള് സംഭവിച്ചു കാലം ഒത്തിരി പുരോഗമിച്ചു പിന്നെ അതുകൊണ്ട് ഇന്നിപ്പം കുറെ സൗകര്യങ്ങളൊക്കെയുണ്ട് പൊടികളില്ല ടൈലും എല്ലാം മാർബിളും എല്ലാം ചെയ്ത് ഗ്രാനൈറ്റുവൊക്കെയുള്ള വീടുകളൊക്കെ ആയതുകൊണ്ട് അതിന് അതനുസരിച്ചുള്ള സാധനങ്ങള് ലിക്വിഡും മോപ്പും ഒക്കെ ഉപയോഗിച്ച് ആണ് ഇന്നത്തെ സൗകര്യങ്ങളോട് ഇന്നത്തെ എല്ലാ ഒരു രീതികളും നടത്തുന്നത് പിന്നെ പഴയ ചാണകം അന്ന് ചാണകത്തിന് ഉണ്ട് ആർക്കും ഓരോ ഉപദ്രവവും ദോഷങ്ങളോന്നും ഇല്ലായിരുന്നു ഇന്നിപ്പം ചാണകത്തില് ഒരു മുറിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാണകം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സെപ്റ്റിക്കാവും പിന്നെ ജീവന് തന്നെ ഭീഷണിയാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇന്നത്തെ സാഹചര്യത്തിലുണ്ട് പഴയ കാലവും പുതിയ കാലവുമായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് പണ്ട് എല്ലാ എല്ലാ വീടുകളും തന്നെ ചാണകം മെഴുകിയതും അങ്ങനെയുള്ളൊരു ഓടിട്ടതും അങ്ങനെ ചെറിയ സൗര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു ഇന്നിപ്പം എല്ലാവർക്കും എല്ലാ എല്ലാ സൗകര്യങ്ങളോട് കൂടി എല്ലാം ഒത്തിരി ഒത്തിരി പുരോഗമിച്ച് നല്ല എല്ലാ എല്ലാവർക്കും തന്നെ നല്ല വീടുകളാണ് എല്ലാ എല്ലാ സൗകര്യങ്ങളോടും കൂടി എല്ലാ ഒരു പൊടിയില്ല മറാലകളില്ല അലർജിയില്ല ആർക്കു അതുകൊണ്ട് രോഗങ്ങളും ഒത്തിരി ഒരുപാട് രോഗങ്ങളൊക്കെ കുറവുണ്ട് പിന്നെ ചാണകത്തിന് ഇന്നിത്തിരി ദുഷ്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് എല്ലാം എന്നാ പറയുന്നത് രോഗങ്ങള് കുറവുണ്ട് പഴയ കാലങ്ങള് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഇന്നത്തെ ലോകത്തിലൊത്തിരി രോഗങ്ങളൊക്കെ കുറവുണ്ട് അത് സംബന്ധവായിട്ട് മറ്റേ പണ്ട് സെപ്റ്റിക്കായി ചാണക മുറുവുകളിലൊക്കെ കൂടെയൊക്കെ രോഗാണുക്കള് കയറി സെപ്റ്റിക്കൊക്കെ ആകുന്നയൊരു സംവിധാനം ഒക്കെ ഉണ്ടായിരുന്നു വീടുകളിലും അത് ബുദ്ധിമുട്ടായിരുന്നു അടിക്കുകയും തൂക്കുകയും ഒക്കെ ചെയ്യുമ്പം പൊടികള് പറക്കുകയും എല്ലാം ഒന്ന് തുടയ്ക്കാനൊന്നും സൗകര്യം ഇല്ലാത്ത കൊണ്ട് ചൂലിനടിക്കുമ്പം പൊടിയെല്ലാം പറന്ന് അത് അലർജിയും അന്നതൊന്നും അറിയില്ലായിരുന്നു എല്ലാം തുമ്മലും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഇന്നത്തെ ലോകത്തില് അതൊ ഇന്നത്തെ ലോകത്തില് അതൊന്നുമില്ല ഒത്തിരി മാറ്റങ്ങളുണ്ട് വീട് നമുക്ക് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരു പൊടിയോ ഒന്നുമില്ലാത്ത് തൂത്ത് തുടച്ച് എല്ലാ എല്ലാ സൗകര്യങ്ങളോടും ഒക്കെയായിട്ടാണ് ഇന്നത്തെ ലോകം ഇന്നത്തെ പോക്ക് പിന്നെ എല്ലാം ലിക്യുടൊക്കെ ഉപയോഗിച്ച് പൊടിയെല്ലാം തൂത്തും വൃത്തിയാക്കി ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എന്ന് കഴിഞ്ഞു പോകുന്നത് അല്ലാതെ എല്ലാ എല്ലാ രീതികളിലും ഇന്നത്തെ ഇതിനോടാണ് യോജിച്ച് പോകുന്നത് നമുക്ക് അഭികാമ്യം അതാണെന്ന് തന്നെ തോന്നുന്നു അല്ലാതെ പ്രത്യേകമായിട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ രോഗങ്ങള് കുറവുണ്ട് നമുക്ക് സൂക്ഷിക്കാനും എല്ലാം നമുക്ക് സൗ നമുക്കും സൗകര്യം ഇന്നത്തേതാണ് പണ്ടെന്ന് പറയുമ്പം ഒരാഴ്ചത് ആഴ്ചയൊക്കെോ ഓട് കൂടി ഓരൊ ഓരോ ആഴ്ചകളില് നമുക്കത് മെഴുകി ചാണകമൊക്കെ മെഴുകി വൃത്തിയാക്കണമായിരുന്നു ഇന്നിപ്പം അതൊന്നുമില്ല ആഴ്ചയിലൊരു ദിവസം ഒരു മണിക്കൂറ് കൊണ്ട് നമ്മുടെ പണി ഇപ്പം നമുക്ക് പെട്ടെന്ന് തീർക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എല്ലാ രീതിയിലും ഇന്നത്തെ തന്നെയാണ് നല്ലത് നമുക്ക് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളും ഇന്നൊത്തിരി കുറവുണ്ട് ചാണകം പൊടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അലർജിയോ അങ്ങനെ ഉള്ള രോഗങ്ങളൊന്നുമില്ല അതിൽ നിന്നെല്ലാം നമുക്കൊരു മോചനമുണ്ട് എല്ലാം കൊണ്ടും അതാണ് സുരക്ഷിതത്വം എനിക്കങ്ങനെയാണ് തോന്നുന്നത് അതിനോട് ഞാനും ആയിട്ട് നൂറ് ശതമാനവും യോജിച്ച് പോകുന്നു ഇന്നത്തെ രോഗത്തോടെ ഇന്നത്തെ ഭവനങ്ങളുടെ ഇതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കേ